ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ശ്രുതി ഞാൻ വിളിക്കുന്നത് ട്രിവാൻഡ്രം തമ്പാന്നൂർ നിന്നാണ് ഞാൻ ഒരു ട്രവലറ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് വിളിക്കുന്നത് ആ ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ട്രിപ്പൊരു മൂന്ന് ദിവസത്തെ ട്രിപ്പായിരിക്കും ആ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി മൂന്നാന്തിയാണ് അഞ്ചാന്തി രാത്രിക്കകം തിരിച്ചെത്തണം ഞങ്ങൾക്ക് ആ ഞങ്ങൾക്കൊരു ട്രാവലറ് തന്നെ വേണം ഞങ്ങളൊരു പത്തോളം പേരുണ്ട് ട്രാവലറ് എസി തന്നെ ആയിരിക്കണം അത് നിർബന്ധമാണ് ആ സീറ്റൊക്കെ നല്ല കൺഫോർട്ടബിളായിരിക്കണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് പിന്നെ പോകുന്ന വഴിയിലുള്ള റെസ്റ്റോറൻറ്റ് ഏതൊക്കെയാണെന്ന് ഒന്ന് തിരക്കി വയ്ക്കണം നിങ്ങൾ ഞങ്ങൾക്ക് പോകേണ്ടത് ആദ്യം ആലപ്പുഴ പിന്നെ വാഗമൺ മൂന്നാർ പിന്ന കൊച്ചിയിലെ വണ്ടർലാ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പോകുന്ന വഴി ഫുഡ് കഴിക്കാനൊക്കെ നിർത്തേണ്ടി വരും അപ്പോൾ അതനുസരിച്ച് ഏതൊക്കെ റെസ്റ്റോറൻ്റാണ് നല്ലതെന്ന് നിങ്ങളൊന്ന് തിരക്കി വയ്ക്കണം ആ ഓക്കേ പിന്നെ പോകുന്ന വഴി ഏതൊക്കെ നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് എന്നും തിരക്കി വയ്ക്കണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ല ആ അതേ പോലത്തെ ആ നിങ്ങളിപ്പം പറഞ്ഞ പോലത്തെ ഉള്ള ടൂറിസ്റ്റ് പ്ലേസാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപെടും പിന്ന ഞങ്ങൾക്ക് ഹോട്ടലും കൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് താരാമല്ലോ അല്ലേ ആ ഞങ്ങൾക്ക് അതിനെ പറ്റി വലിയ അറിവില്ല ഏതൊക്കെ ഹോട്ടലാണ് അവിടെ ഉള്ളതെന്ന് ആ നല്ല വൃത്തിയുള്ളത് നോക്കണം പിന്നെ എസി റൂം തന്നെ വേണം മിനിമം ഒരു അഞ്ച് റൂമെങ്കിലും ബുക്ക് ചെയ്യണം ആ ഓക്കേ ആ പിന്നെ അവിടുത്തെ ക്ലെയിമറ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒന്ന് നേരത്തെ അറിയിക്കണം ഞങ്ങൾക്ക് അതിനനുസരിച്ച് ഒന്ന് പ്രിപ്പേർ ചെയ്യാനാണ് അപ്പോൾ ഇത്രയും ട്രാവലിംഗിന് എത്ര ബഡ്ജെറ്റാവും ആ ഓക്കേ ടു തൗസൻറ്റ് ആണല്ലേ ആ അപ്പോൾ ഇത് കൂടില്ലല്ലോ അല്ലെ ആ ഞങ്ങൾ എക്സ്ട്രാ എവിടേയും പോകുന്നില്ല ഇത്രയും സ്ഥലമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പോകുകയാണെങ്കിൽ കൂടത്തല്ലേ ഉള്ളു ആ ഓക്കേ ഞാൻ ലൊക്കേഷൻ അയച്ച് തരാം അപ്പോൾ മൂന്നാന്തി രാവിലെ ഒരഞ്ച് മണിക്ക് പോകുന്ന വിധം ഇവിടെ ട്രാവലർ വരണം പിന്നെ ഡ്രൈവറിൻ്റെ നമ്പർ നേരത്തെ അയക്കണം ആ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു